നമ്മൾ നമ്മുടെ വീട് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളുടെ എന്താ പൂന്തോട്ടത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ടായിരിക്കും അത് എല്ലാ അതും ഇപ്പോൾ എൻ്റെ വീട് കേരളത്തിലാണ് കേരളത്തിൽ പാലക്കാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീടെന്ന് പറയുമ്പോൾ അവിടേയ്ക്ക് പറ്റിയ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ അവിടത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ചെടികൾ മാത്രമായിരിക്കില്ല നമ്മളും നമ്മളുടെ നമ്മളുടെ വീട്ടിലെ പൂന്തോട്ടത്തിലെ നമ്മുടെ പ്രദേശത്തുള്ള പൂന്തോട്ടത്തിലും എന്നു വെച്ചാൽ നമ്മുടെ പ്രദേശവാസികളുടെ വീട്ടിലുള്ള പൂന്തോട്ടത്തിലും അവര് വളർത്തുന്നുണ്ടായിരിക്കാം ഇപ്പോൾ അവർ ഒരു ചെടി വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും അതിന് പറ്റിയിട്ടുള്ള അതിന് പറ്റിയിട്ടുള്ള മണ്ണ് അതിനൊപ്പം വേണ്ടതായിരിക്കും പിന്നെ അതിന് പറ്റിയിട്ടുള്ള വളം വേണ്ടതായിരിക്കും അപ്പോൾ അത് അവിടെ വളരാൻ പറ്റാത്തൊരു ചെടിയാണ് എന്നുണ്ടെങ്കിൽ എന്താ തീർച്ചയായും അതിന് പറ്റിയ അതിന് വളങ്ങളും അതിനുപറ്റിയ മണ്ണും അതിനു പറ്റിയിട്ടുള്ള സംരക്ഷണം നമ്മൾ കൊടുക്കേണ്ട അത്യാവശ്യമായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ വെറുതെ പറയുകയാണ് മീൻസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂര്യകാന്തി പറയുകയാണെന്ന് നമ്മളെ വീട്ടിൽ വളർത്തണം എന്നുണ്ട് നമ്മൾ നന്നായിട്ട് അതിനെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇപ്പോൾ ഇതാ അങ്ങനെ ഒരു ചെടി വളർന്ന് നമുക്ക് കിട്ടുക അതിന് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യകാന്തി ഒക്കെയാണെങ്കിൽ ഉണ്ടാവേണ്ട സ്ഥലം അത് ഒരുപാട് ഉണ്ടാക്കും ഉണ്ടാവുന്ന സ്ഥലം വേറെ സ്ഥലങ്ങളായിരിക്കും പക്ഷേ അത് നമ്മൾ ഇവിടെയും വളർത്തണം നമ്മൾ അതിനാണ് നന്നായിട്ട് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് അങ്ങനെ ഒരു പൂന്തോട്ടം നമുക്ക് നല്ല എല്ലാ ഇനത്തിലുള്ള ചെടികളും പൂക്കളും ഉണ്ടാകുന്ന ഒരു പൂന്തോട്ടം കിട്ടുക അതിനു പറ്റിയിട്ടുള്ള വളങ്ങളും മണ്ണുകളും എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നതാണ്